വീട്ടിലൊരു ചെടി നടണമെങ്കിൽ ചെടിയിൽ വെള്ളവും മണ്ണും ഒരുപോലെ ആവണം പൂന്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന സൗകര്യം അത് ഒക്കെയാകുമ്പോൾ ചിലവ് കൂടും പൂന്തോട്ട പൂച്ചട്ടിയും അതിന് വേണ്ടുന്ന സൗകര്യോല്ലാം ആക്കണം അപ്പം അതിനെത്ര സമയം വേണം എത്ര ചിലവിടണം കുറെ പൈസ ആന്ന് അതിനെല്ലാം മണ്ണും വളവും വെള്ളവും പൈപ്പും അതിന് വേണ്ടുന്ന ഇതെല്ലാം ഇട്ട് വരുമ്പോൾ ആൾക്കാറും എല്ലാവരും കൂടി അതിനെല്ലാം ചെയ്യുമ്പോൾ അത് നല്ല ഒരു പൂന്തോട്ടാവും പൂന്തോട്ടം അതിന് പറ്റിയ മണ്ണും ഇതും ഉണ്ടെങ്കിൽ ചെടി നല്ലതായി വളരും വെള്ളവും മണ്ണും നല്ലതാണെങ്കിൽ ചെടി നല്ല ഇതുണ്ടാവും പൂന്തോട്ടം ഒരു പൂന്തോട്ടമുണ്ടാക്കണമെങ്കിൽ അത്ര തന്നെ കഷ്ടപ്പാടുണ്ടു നനക്കാനും അതിനെ നല്ല വണ്ണം വെള്ളം കൂടി നനക്കാനും മണ്ണിട്ട് വളർത്താനും അത് കട്ട് ചെയ്യാനും ഒരു തോട്ടത്തിലെത്ര ഇത് വേണം അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കത്ര തന്നെ ചിലവും സമയവും വേണം അതിനെ തന്നെ നോക്കി നല്ല അതിനെ തന്നെ നോക്കി നടത്തിയതെങ്കിൽ നല്ല പൂവും പിടിച്ച് നല്ല ഇതാകും ചെടികളെല്ലാം നല്ല വളർന്ന് അല്ലാതെ നോക്കാതെ വെള്ളോം മണ്ണും ഒന്നും ഇടതെ അതിനെ നോക്കാതെ വളവും ഇട്ട് കൊടുത്തില്ലങ്കിൽ ആ ചെടി ആടക്കെ നശിച്ച് പോകും നല്ല വണ്ണം അതിന് വളോം ഇതെല്ലം ഇട്ട് കൊടുത്തിട്ട് നോക്കിയാൽ നല്ലതായി പൂ പിടിച്ച് നല്ല ഭംഗിയിൽ നല്ലൊരു പൂന്തോട്ടമുണ്ടാക്കാൻ നമുക്ക് പറ്റും അതിനായി മെനക്കെടണം നോക്കാനും വെള്ളോടാനും മണ്ണിടാനും ചെടി പോയതെടുക്കാനും അതിനെ നട്ട് നനക്കാനും നല്ല ദിവസോം രാവിലെ വെള്ളോടണം വൈകുന്നേരം വെള്ളോടണം അപ്പം നന്നായി വളരും അതിന് വളം നല്ലോണം ഇട്ട് കൊടുക്കണം ഒരു പൂന്തോട്ടത്തിന് വേണമെങ്കിൽ രണ്ട് മൂന്ന് ഇതെല്ലാ ആക്കണങ്കിൽ അത്ര തന്ന ചിലവുണ്ട് എന്നെങ്കിലും പൂ വീട്ടിൻ്റെ മുറ്റത്തൊരു പൂന്തോട്ടകുമ്പോൾ അത് നല്ല ഭംഗിയല്ലേ കാണാൻ നമുക്കെത്ര ചിലവ് വന്നാലും അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ് ഒരു വീട്ടുമുറ്റത്തൊരു പൂന്തോട്ടം ഉണ്ടാവുന്നത് അതത്ര ഭംഗി തന്നെ കാണാനും നല്ലൊരു ചേന നട്ടു ചെടിയെല്ലാം നട്ട് അതിലെ പൂ പിടിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടാൽ അത് കാണുമ്പോൾ അതിൽ പിടിച്ച് വരുന്ന പൂ കാണുമ്പം നമുക്കതൊരു സന്തോഷം തന്നെ അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ട് ചിലവേറിയതും അതിൽ ചിലവ് കൂടുവത് ഇപ്പോഴത്തെ കാലത്തട്ടാകുമ്പോൾ ഒരു പൂന്തോട്ടണ്ടാകണമെങ്കിൽ ഒരു ചെടിച്ചട്ടി വാങ്ങണങ്കിൽ തന്നെ അത്ര തന്നെ പൈസയുണ്ട് അത് നമുക്കത്ര പൈസേണ്ടങ്കിലും ഇപ്പം എന്നെങ്കിലും ഒരു വീട്ടുമുറ്റത്തൊരു കാണാൻ പറ്റുന്നതെങ്കിൽ അത് ഒരു നല്ലൊരു കാര്യം തന്നെ ചെടി ചെടിക്ക് വളവും മണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ ചെടി നല്ല രീതീയിൽ കിളിർത്ത് വരുവത്രെ രാവിലെ ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത് വെള്ളം ഇട്ടില്ലങ്കിലത് ത വാടി തളർന്ന് പോകും അപ്പം അതിന് രാവിലേം വൈകുന്നേരം വെള്ളമൊഴിച്ച് കഴിഞ്ഞങ്കിൽ അത് നല്ലത് പോലെ കിളിർത്ത് വരും അപ്പം അതിൽ പൂ പിടിച്ചത് കാണുമ്പോൾ നമുക്കത് പറിച്ചിട്ട് അത് ഒരാവശ്യത്തിന് നമ്മൾ എടുക്കുമ്പം നമുക്കത് ഭയങ്കര സന്തോഷകരമായി മണ്ണും ഇതും എല്ലോടണം ഇപ്പാണെങ്കിൽ ഇപ്പം പൂ ചട്ടിയെല്ലാം വാങ്ങാൻ കിട്ടുന്നു പിന്നെ ഇത് നല്ല വാങ്ങിയാൽ പൂ ചട്ടിയെല്ലാം കൊണ്ടന്ന് അത് വീട്ടുമുറ്റത്ത് വെച്ച് അതിന് രാവിലെ വെള്ളെല്ലാം കോരുമ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗി ഇപ്പോഴുള്ള എല്ലാവരും ചെടി ചട്ടീലല്ല പൂവുണ്ടാക്കുന്നത് ഇപ്പം നിലത്ത് മണ്ണിലെല്ലാം നടുന്നത് വളരെ കുറവാണ് എല്ലാവരും ചെടി ചട്ടീൽ വാങ്ങാൻ കിട്ടുന്നത് കൊണ്ട് എളുപ്പത്തിൽ അതാവുന്നു അതുകൊണ്ട് അത് വാങ്ങി കൊണ്ട് വരുന്നു പിന്നെ വീട്ടിൽ വെച്ച് അതിനെ വെള്ളമൊഴിച്ച് അങ്ങനെ ഇതാക്കുന്നു മുമ്പത്തെ കാലത്താണെങ്കിൽ എല്ലാവരും ഭൂമീല് നല്ല മണ്ണും നല്ല ഇതു ഇട്ട് ആടെ നട്ട് വളർത്തിയ ആ ചെടി കാണാൻ തന്നെ നല്ല പടർന്ന് പന്തലിച്ച് കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു ഇപ്പെല്ലാം ടെറസിൻ്റെ മീതെല്ലാം ചെടി വച്ചിട്ട് മീതെ ആയാലും മിറ്റത്തായാലും ചെടിച്ചട്ടീല് പൂ വച്ച് അതിനെ വെള്ളം അത് പിന്നെ നോക്കില്ലെങ്കിൽ അത് ഒണങ്ങി പോകും അപ്പം അങ്ങനെയുള്ള കാര്യല്ലാണ് ഇപ്പോഴത്തെ കാലഘട്ടത്ത് അപ്പം ഇനി വളരുന്ന ജനറേഷനിൽ ഇനിയിത്ത കാലത്ത് എല്ലാവരും പൂച്ചട്ടി വാങ്ങീട്ട് റെഡി മൈഡ് ഉപയോഗിക്കും ഇനി ചെടി മണ്ണ് കിളച്ചായാലും ചെടി നട്ട് വളർത്താനൊന്ന് ഇനിയിത്ത കാലത്തുള്ള പിള്ളോരുമാരൊന്നും കേൾക്കൂല്ല അപ്പം ഇപ്പോഴത്തെ കാലത്തിലെ അവസ്ഥ ഇങ്ങനെ ഇനി ഇനി പോണ കാലത്ത് പശു ഇതെല്ലം ചട്ടി അപ്പം ഇനിയുള്ള കാലത്തിലെല്ലാം പൂച്ചട്ടി തന്നെയായിരിക്കും ഇനിയുള്ളവരെ വീട്ടുമുറ്റത്തൊക്കെ കാണൽ പിന്നെ ചെടി നാട് പണ്ടത്തെ ആളെപ്പോലെ ചെടി നടാനൊന്നും ആരും ഇനി ഇതാക്കൂല്ല പരിസരം വെക്കൂല്ല മണ്ണും ചെളിയെല്ലാം പുരളാൻ വേണ്ടീട്ട് മുമ്പെല്ലാം ഇങ്ങൾ നല്ലോണം പണിയെടുക്കും മിറ്റത്ത് കൃഷി ചെയ്യൽ നട്ട് കുറെ റോസാ പൂവെല്ലാം പിടിക്കും ഇപ്പൾത്തെക്കാലത്ത് അങ്ങനത്തോരു റോസാപ്പൂ മുറ്റത്ത് കാണാനേ ഇല്ല ആരും മിറ്റത്തല്ല എവിടേം കാണുന്നില്ല ഇപ്പോൾ എല്ലാം പൂച്ചട്ടി മാത്രം മുമ്പെല്ലാം എല്ലാ ഭാഗത്തും റോസ് ചെടിയായി നിറയും റോസാപ്പൂ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും പിന്നെ പിന്നെത്തെ ന്യൂ ജനറേഷൻ അങ്ങനെ ആയിരിക്കും ഇന്നത്തെ കാലത്ത് കുട്ടികളെല്ലാം ഇപ്പോൾ എല്ലാം റെഡി മെയ്ഡല്ലേ അതുകൊണ്ട് ഇനിയുള്ളതെല്ലാം ഇനി അവരെല്ലാരും പൂച്ചട്ടിയും പൂന്തോട്ടം ചെടിച്ചട്ടീലായിരിക്കും പൂ വിടർന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാകും അതുകൊണ്ട് ഇനിയാത്തേല്ലേ മുമ്പഴ്ത്തെ കാലത്തെല്ലാം മുറ്റത്ത് നിറയെ ചെടി മണ്ണ് മാന്തി ചെളിയാക്കി പൂ വിൽക്കാനും നല്ല ഒരിതുണ്ടായിരുന്നു ഇപ്പൾത്തെ കാലത്തതാവൂല്ല ഇപ്പോൾ എല്ലാവരും പൈസ കൊടുത്ത് ചെടിച്ചട്ടി വാങ്ങും മിറ്റത്ത് വെക്കും അതിനെ നോക്കും വെള്ളഴിക്കും പൈസ കൊണ്ട് ചിലവാക്കും ഇതാകും പണ്ട് പൈസ ഇല്ലാതെ പൂന്തോട്ടം മുറ്റത്തുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് അതല്ല എത്ര പൈസ തീർത്താലും മുറ്റത്തൊരു പൂന്തോട്ടം വേണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ എത്ര പൈസ വേണമെങ്കിലും കഴിക്കും പിന്നെ അത് വാങ്ങി കൊണ്ട് വരാൻ മാത്രം തന്ന ചിലവും ഉണ്ട് പാവപ്പെട്ടവരിക്കെല്ലാം മിറ്റത്തെ പൂന്തോട്ടം മാത്രമാണ് ശരണം പൈസ പൈസ ഉള്ളവരിക്കാകും പൂ ചെടി മേടിക്കാനും പൂച്ചട്ടി വാങ്ങാനും സ്ഥലമില്ലാത്തവർ എന്ത് ചെയ്യും അപ്പോൾ ഇല്ലാത്തവരും മിറ്റത്തെ പൂന്തോട്ടം മിറ്റത്ത് തന്നെ ഉണ്ടാക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കു ചെയ്യാം ഇനി വളരുന്ന കുട്ടികളും അതുതന്നെ പാഠം പഠിക്കണം അതാണ് നമുക്ക് വേണ്ടത്